തീർച്ചയായിട്ടും പെൻസില് കൊണ്ട് ചിത്രം വരയ്ക്കാറുണ്ട് പെൻസില് ലന്നെ ഷെയ്ഡ് ചെയ്യാറുണ്ട് നല്ല ഭംഗിയാ പെൻസില് കൊണ്ട് വരച്ച് പെൻസില് കൊണ്ട് ഷെയ്ഡ് ചെയ്ത് വരയ്ക്കുന്നതു നല്ല ഭംഗിയാണ് കാരണം നമുക്ക് എന്തെങ്കിലും തെ ചിത്രം പെൻസില് കൊണ്ട് വരയ്ക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്തെങ്കിലും ഒരു തെറ്റ് വന്നാല് മായ്ച്ചിട്ട് വീണ്ടും വരയ്ക്കാൻ പറ്റും കൂടുതലും ഞാൻ ആദ്യ കാലങ്ങളില് പെൻസില് കൊണ്ടു തന്നെയാണ് വരച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് കളർ പെൻസില് കൊണ്ടും എല്ലാം വരയ്ക്കാൻ തുടങ്ങിയത് കളര് കളർ പെൻസില് പെന്നേക്കാൾ കൂടുതല് പെൻസിലുപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോള് ഷെയ്ഡ് ചെയ്യുന്നതാ കാണാ തന്നെ പെൻസില് നല്ല ഡാർക്ക് പെൻസില് ഡാർക്ക് കളറില് പെൻസിലുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് വരയ്ക്കുവാണെങ്കില് വളരെ ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റും എളുപ്പം പെൻസിലുകൊണ്ട് വരയ്ക്കുന്നതു തന്നെയാണ് പെൻസിലുകൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളര് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം തെറ്റിപ്പോയാൽ നമ്മള്ക്ക് അത് മായ്ച്ച് ഔട്ട്ലൈനൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും അപ്പോള് സാധാരണ കുട്ടികള് ചെയ്യുന്നതും മിക്കവാറും അങ്ങനെയാണ് നന്നായിട്ട് വരയ്ക്കുന്നവരാണേപ്പോലും ഔട്ട്ലൈൻ പെൻസിലുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ തന്നെയാണ് ആണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെ തന്നെയാ ഇപ്പോള് ചിത്ര രചനയില് കളറ് നേക്കാൾ കൂടുതൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത് നമുക്ക് അത് പെൻസിലുകൊണ്ട് വരയ്ക്കുന്നതു തന്നെയാണ് രണ്ടും രണ്ട് താരതമ്യം ആണെങ്കിൽ പോലും പെൻസിലുകൊണ്ട് വരച്ച് വരച്ച് വരച്ച് തഴക്കമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെൻസില് മാറ്റിയിട്ട് കളർ പെൻസിലോ ഒക്കെ കൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും എളുപ്പം എന്ന് പറയുന്നെ തീർച്ചയായിട്ടും പെൻസില് തന്നെയാണ് വരച്ച് പ്രാക്ടീസായി പരിശീലനമായിക്കഴിഞ്ഞാല് നമുക്ക് പേന കൊണ്ടോ കളർ പെൻസില് കൊണ്ടോ പിന്നെ പെയിൻറ്റ് ക കളർ പെയ്ന്റ് പെയിൻറ്റൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്നത് നന്നാവും എന്നാൽ പോലും ആദ്യ കാലങ്ങളില് പെൻസിൽ തന്നെയാണ് നല്ലത് കാരണം പേന കൊണ്ടൊക്കെ വരച്ച് പേപ്പറൊക്കെ വൃത്തികേടാക്കുന്ന കളർ പെൻസിലുകൊണ്ട് വരച്ച് വീണ്ടും വീണ്ടും നഷ്ടങ്ങള് വരും പേപ്പറിൻ്റെ നഷ്ടം വരും അപ്പോള് നമ്മള് വരച്ച് ശീലിക്കാനും പിന്നെ നന്നായിട്ട് വരയ്ക്കാനും പെൻസില് തന്നെയാണ് നല്ലത് അപ്പോള് തന്നെ നഷ്ടം വരത്തില്ല പെൻസിലൊക്കെ ഒത്തിരി നാള് ഉപയോഗിക്കാനും പറ്റും പേന ഒക്കെയാവുമ്പോഴത്തേക്ക് വരച്ച് വരച്ച് വരുമ്പത്തേക്കും കളർ പെൻസിലൊക്കെകൊണ്ട് പെട്ടെന്ന് അപ്പോള് സാമ്പത്തിക ലാഭം കൂടിയുണ്ട് അത് പെൻസില് കൊണ്ട് തന്നെ വരച്ചിട്ട് വരച്ച് ശീലിച്ചിട്ട് കളര് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് ചിത്രരചന നമ്മുടെ ജീവിതത്തില് വളരെ സന്തോഷവും അതുപോലെതന്നെ നമുക്കൊരു ഒരു അഭിമാന ഇതുകൂടി തോന്നും നമുക്ക് നമ്മള് ഇത്രയും നല്ല ഭംഗിയായിട്ട് വരച്ചല്ലോ നമ്മള്ക്ക് വരയ്ക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഇത് നമുക്ക് സന്തോഷോം അഭിമാനമുള്ള കാര്യമാണ് ജീവിതത്തില് ഏതെല്ലാം മേഖലയിലാണ് നമ്മള് സന്തോഷം കണ്ടെത്തുന്നത് സാമ്പത്തികം ഒരുപക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഒരു കഴിവ് നമ്മള് പ്രകടിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മള്ക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നും ചിത്ര രചന യെ സംബന്ധിച്ച് പറയുവാണെങ്കില് കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് വളർന്ന് വരച്ച് വരച്ച് വരച്ച് നല്ല ഒരു ചിത്ര ഇതിലേക്ക് വരാണമെന്നുണ്ടെങ്കില് ആദ്യ കാലത്ത് പെൻസിൽ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം അത് ഞാന് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങള് പെൻസില് കൊണ്ട് വരച്ച് പഠിച്ചിട്ട് കളര് ചെയ്താൽ മതിയെന്ന് കൊച്ചുകുട്ടികള് എന്തെങ്കിലൊക്കെ അവരുടെ അടുത്ത് ഞാനും അവർക്ക് പരിശീലനം കൊടുക്കുമ്പോള് പെൻസില് കൊണ്ട് വരച്ചാണ് പരിശീലനം കൊടുക്കുന്നത് കാരണം അവർക്കും ഒരു കോൺഫിഡൻറ്റ് വരണമെങ്കില് വരച്ച് നന്നായിട്ട് വരയ്ക്കാൻ പറ്റിയെന്നുള്ളത് വരണം അതിലാണ് അവരെക്കൊണ്ട് പെൻസില് കൊണ്ട് വരപ്പിക്കുന്നത് അപ്പോള് പെൻസില് കൊണ്ട് വരച്ചിട്ട് ഷെയ്ഡൊക്കെ ചെയ്യാനായിട്ട് പിള്ളാർക്ക് അത് എളുപ്പമാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് പെൻസില്കൊണ്ട് വരയ്ക്കുന്നതെന്നു പറയുന്നത് പിന്ന കളർ പെൻസില് കൊണ്ടു വരച്ച് അത് മോശമാക്കുന്നതിലും നല്ലത് പെൻസില് കൊണ്ടൊക്കെ വരച്ചിട്ട് കളര് ചെയ്യുന്നതായിരിക്കും പെൻസില് ചിത്രരചനയില് ഏറിയ പങ്കും വഹിക്കുന്നത് പെൻസിലാണ് ആദ്യ കാലങ്ങളില് പെൻസില് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെയാണ് അത് കളറിലേക്ക് മാറിയത് കളർ പെൻസിലിങ്ങിൻ്റെ പെൻസിലിങ് തന്നെ മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോള് അത് നല്ല ഡോട്ടൊക്കെയിട്ട് ഒക്കെയിട്ട് അതിൻ്റെ ചുറ്റിനും ഭംഗിയായിട്ടൊക്കെ വരച്ച് അപ്പോള് കുട്ടികൾക്ക് നല്ല നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോള് പെൻസിലുപയോഗിച്ച് വരയ്ക്കുന്നത് കുറേക്കൂടി നമ്മള് നമ്മള്ക്ക് സംതൃപ്തി തരും അത് അതിന് ഉപരിയായിട്ട് നമുക്ക് നല്ല കാണാനും നല്ല ഭംഗിയാണ് കളർ പെന് കളര് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് കളർ ഇഷ്ടപ്പെടാത്തവരുമുണ്ട് അപ്പോള് കളര് ഇഷ്ടപ്പെടാത്തവർക്ക് പെൻസില് കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോള് രണ്ടും നല്ലതാണ് എങ്കിലും കുറച്ചുകൂടി എളുപ്പവും സുതാര്യവുമായത് പെൻസിലുപയോഗിക്കുന്നതാണ്